അതേ പറഞ്ഞോളൂ ആ ഞാൻ ഇത് ഷോപ്പിൻറ്റെ ഓണറാണ് എന്തോ ആദിൻ ആദിൻ

നമ്മുടെ നമ്പറെവിടുന്ന് കിട്ടി ഓ ശരി ശരി ഞാൻ ആണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ നമ്മൾ വാച്ച് സാർ നമുക്ക് വാഷ് മാത്രം മതിയോ അതോ വേറെ എന്തേലും നമ്മൾ പോളിഷിങ്ങുണ്ട് പോളിമർ കോട്ടിങ്ങുണ്ട് ഗ്രാഫെയ്ൻ കോട്ടിങ്ങ് നമുക്ക് കുറെ കോട്ടിങ്ങ് വരുന്നുണ്ട് ആ പോളിമർ കോട്ടിങ്ങുണ്ട് സാർ ഓക്കെ നമുക്ക് ഗ്രാഫെയ്ൻ കോട്ടിങ്ങുണ്ട് പിന്നെ നമ്മൾ നമുക്ക് ഒരു വണ്ടി നമ്മൾ ഇപ്പേതാണ് വണ്ടി നമ്മുടെ നമ്മുടെ വണ്ടി ഏതാണ് ഓ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഫൈവ് ഇയർ നമുക്ക് വാററ്റി വരുന്ന പി പി ഫ് ചെയ്താലോ വണ്ടിയിൽ പിപിഫ് ചെയ്താല് നമ്മളൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങാ കൊടുക്കുന്നെ അപ്പൊ വണ്ടിക്ക് ഭയങ്കര സേഫ്റ്റിയാണ് അണ്ടർബോഡി കോട്ടിങ്ങ് ചെയ്യാ നമക്ക് പി പി എഫും കൂടെ ചെയ്തുവിടാം കാരണം എമൗണ്ടെന്തേലും വിഷയമില്ലെങ്കി നമക്ക് ഒരു ഡീറ്റൈലിങ് വാഷെല്ലാം കഴിഞ്ഞ് നമക്ക് പി പി എഫും ചെയ്ത് നമക്ക് നമക്കൊരൂ അണ്ടർബോഡി കോട്ടിങ്ങും കൂടെ സെറ്റെയ്യാം ബ്രോ പ്പ നമക്കൊരു എല്ലാങ്കൂടെ റേറ്റ് വരുമ്പൊ നമക്കൊരൂ സിക്സ്റ്റി റേഞ്ച് വരും

അറ ബ്രോ അല്ല സാർ അറ്വതിനായിരം രൂപ

ഹലോ അതെ അതെ അതെ അതെ നമക്ക് നോക്കാം നമക്ക് മാക്സിമം അഡ്ജസ്റ്റീയ്യാ നമ്മള് നമ്മടെ വീടെവിടായിട്ടാ നമ്മടെ നമ്മടെ വീടെവിടെയാ ബ്രോ നമ്മടെ വീടെവിടെയാ ഉഴൂരല്ലേ എൻറ്റവ ഉഴൂരില് നമ്മടൊരു കൂട്ടുകാരനുണ്ടായിരുന്നു നമ്മടെ നമക്കീ സെബാസ്റ്റിനെ അറിയാവോ വണ്ടി എടുത്തോണ്ട് പോവാം എനിക്കവടൊരു ഉഴൂരിലൊരു ചെറിയൊരു കമ്പനികാരനുണ്ട് സെബാസ്റ്റിനെ അറിയാവോ സെബാസ്റ്റ്യൻ മറ്റേ നമ്മടെ പോർഷെകാറുളെള പോർഷെകാറുളെള ഓ അതെ അതെ അതെങ്ങനെ ആ ഓക്കെ ഓക്കെ ഓ അപ്പൊ പരിചയക്കാരനാല്ലേ അപ്പൊ നമക്ക് മാക്സിമം നമക്ക് ഓ നമക്കങ്ങനാണെങ്കി മാക്സിമം നമക്ക് ഡിസ്കൗണ്ട് നമക്ക് ഡിസ്കൗണ്ടെയ്യ ഡിസ്കൗണ്ടെയ്യാം ആ ഡിസ്കൗണ്ടെയ്യാം നമക്ക് നമക്കൊരു ഫോർട്ടി ഫൈവ്ന് അഡ്ജസ്റ്റെയ്യാ നമക്ക് പൊറത്തു പറയണ്ടാ ഫോർട്ടി ഫൈവ്ന് നമുക്കഡ്ജസ്റ്റെയ്തേരാം ആ ഫോർട്ടി ഫൈവിന് ചെയ്തേരാം ഏ നമക്കൊരു ഫോർട്ടി ഫൈവിന് സെറ്റീയ്യാം ഓ ഓക്കെ ഓക്കെ വണ്ടി നമ്മവടെ വന്നെടുത്തോളാം നമക്ക് ജസ്റ്റൊന്ന് വാട്സപ്പ്ല് ലൈവ് ലൊക്കേഷനൊന്നിട്ടാമതി

ഏതാ ഇപ്പ വാട്സപ്പ് നമക്ക് വഴീ ലൊക്കേഷൻ പറഞ്ഞാമതി എങ്ങനാച്ചാ നമ്മളവടെ എത്താം നമ്മടെ കസ്റ്റമർ നമ്മടെ കടേലെ ജോലിക്കാരനെ വിട്ടേക്കാം ആ ഓക്കെ നമക്ക് ആ ഞാന് സാറിൻ്റെ നമ്പര് കൊടുത്തേക്കാം ആ ഓക്കെ താങ്ക്യൂ